ഇപ്പോൾ കേരളത്തിലെ തന്നെ വിവിധ അതായത് വിവിധ പ്രദേശങ്ങളില് പല രീതിയിലുള്ള അതായിത് സംസ്കാരവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ അമേരിക്കൻ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മോഡേൺ സംസ്കാരമാണ് നമ്മളെ കേരളത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാരൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് പല രീതിയിലാണ് എല്ലാവരും ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയില് ഉള്ള ഒരു ഇപ്പോൾ പല രീതിയിലുള്ള കൾച്ചർ ആണ് അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും മാറി നിൽക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കൻ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സും ഇപ്പോൾ പെണ്ണ് ലേഡീസ് ധരിക്കുന്ന ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീൻസും ടോപ്പും അങ്ങനത്തെ സ്റ്റൈൽ ഒക്കെയാണ് കൂടുതലായിട്ടും കൊണ്ടുവന്നത് പിന്നെ അറേബ്യൻ സംസ്കാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ വേറെ തന്നെയായിരിക്കും ഇപ്പോൾ അറേബ്യൻ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ലഭ്യമാണ് ഷവായി അങ്ങത്തെ ഓരോ അവരുടെതായിട്ട് ഉള്ള രീതിത്തന്നെയുള്ള പേരും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത് ഇപ്പൊൾ ചൈനീസ് ഫുഡ് അങ്ങനത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇഷ്ടംപോലെ വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം